ഹലോ ഹലോ അതെ പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് ആയിരുന്നു ഓക്കെ ഓക്കെ നമ്മൾ ഇത് ഒരു ഒരു കോമ്പോ ഓഫർ പോലെയാണ് നമുക്കൊരു പ്രസവരക്ഷക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒമ്പത് ദിവസം പതിനാല് ദിവസം ഏഴ് ദിവസം അങ്ങനെ ഒക്കെയാണ് ഇവിടെ പിന്നെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നത് കാരണം വേവ് പൊടി പണ്ടത്തെ ആയുർവേദത്തിൻ്റെ പണ്ട് കാലത്ത് ചെയ്തിരിക്കുന്ന പോലത്തെ രീതികളിൽ നിന്നാണ് ഇവിടെ ചെയ്യുന്നത് ഫുഡും കാര്യങ്ങളും അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാൻ നേരത്ത് കുട്ടീനേയും പിന്നെ ആരെയാണോ ഇപ്പോൾ മക്കളെയാണോ അവരെയാണേൽ കൂട്ടിയിട്ട് പോവാം അതുവരെ ഞങ്ങളുടെ കീഴിലായിരിക്കും ഇവിടെ ഒരാൾ നിൽക്കണം എന്നുള്ള ഒരു ഇത് ഒന്നും വരുന്നില്ല നമ്മൾ തന്നെ നമ്മുടെ സ്റ്റാഫ് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കും കൊച്ചിൻ്റെ കാര്യമായാലും അമ്മേൻ്റെ കാര്യമായാലും നമ്മൾ നോക്കും പിന്നെ ഇവിടെ തന്നെ സ്പാ ഉണ്ട് പിന്നെ ഉഴിച്ചിൽ മസാജിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വേവു കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് എത്ര ദിവസത്തേൻ്റെ ആണ് നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് ഇവിടെ ഓരോ ഇതിന് വ്യത്യസ്തമായിട്ട് ആണ് പേ ചെയ്യുന്നത് നമ്മുടെ ഏഴ് ദിവസത്തേക്ക് ആണെങ്കിൽ നാൽപത്തയ്യായിരം രൂപയാണ് അത്രയും ദിവസത്തെ അക്കോമഡേഷൻ കുട്ടീൻ്റെ കൊച്ചിൻ്റെ കാര്യവും നോക്കും നമ്മൾ കൊച്ചിനെയും നമ്മൾ തന്നെയാണ് കുളിപ്പിക്കുന്നത് നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കുട്ടികളെ കുളിപ്പിക്കുമല്ലോ അത്രയും ദിവസം കുട്ടീടെ കാര്യവും നമ്മൾ തന്നെ നോക്കും അതേപോലെ തന്നെ കുട്ടീടെ അമ്മയുടെ കാര്യവും നോക്കും അതിന് നമുക്ക് വേവു കുളി പിന്നെ നമുക്ക് ഒരു പിന്നെ ഇത് ഉണ്ട് ഒരു ആവി പിടിക്കുന്ന സാധനം ഉണ്ട് അത് പണ്ടത്തെ മരത്തിൻ്റെ ഇതാ പിന്നെ നമുക്ക് പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എണ്ണ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ തലയിലോട്ട് ആക്കി വീണ് വീണ് നമ്മൾ നല്ല മസാജ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡും എല്ലാം ഓക്കെ ആവും പിന്നെ നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് കണ്ണ് പിന്നെ കണ്മഷി ഒക്കെ നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് തന്നെ പിന്നെ കഞ്ഞി വേവു നമ്മുടെ പ്രസവരക്ഷാക്കൂട്ട് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും വേണ്ട എല്ലാ കൃത്യമായിട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ പിന്നെ വീട്ടിലോട്ട് വിടുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ സാധാരണ രീതിയിൽ നോക്കിയാൽ മാത്രം മതി ഒരു മാസത്തേക്ക് ആണോ വേണ്ടത് ഓക്കേ ഞാൻ ഒരു മാസത്തേക്ക് എന്നാൽ ബുക്ക് ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി എന്നാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് നിങ്ങൾ പിന്നെ ഇവിടേക്ക് വന്നാൽ മതി ആയുർവേദ ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി ഇവിടെ നമുക്ക് അഡ്മിഷനും കാര്യങ്ങളും എടുത്ത് നിങ്ങൾ എന്തായാലും ഓൾറെഡി പറഞ്ഞതല്ലേ നിങ്ങൾ എന്നാ വരുന്നേ ഡേറ്റും കാര്യങ്ങളും ഒന്ന് എനിക്ക് ഓൾറെഡി മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട റൂമും കാര്യങ്ങളും ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാമായിരുന്നു എനിക്ക് ഓക്കേ എന്നാൽ ശരി